ഹലോ ടി കെ ഫുഡ്സ് അല്ലെ ഹോട്ടൽ ആ ഓക്കെ ഓക്കെ ഹോട്ടലാണ് അല്ലേ ആ നമ്മളെ ഒരു ഫുഡ്ഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ നമുക്ക് രണ്ട് കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഒരു അഞ്ച് ബിരിയാണി വേണം താപ്പാക്കെട്ട് ബിരിയാണി ആ അതെ അഞ്ച് ബിരിയാണി അഞ്ച് ബിരിയാണി ചിക്കൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ മട്ടൻ ഉണ്ടോ എന്നാൽ മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ അതിന്റെ അഞ്ച് മട്ടൻ ബിരിയാണി നമുക്ക് പാർസല് ചെയ്യണം നമുക്ക് വീട്ടിലോട്ട് വേണമായിരുന്നു കൊണ്ടുവന്ന് തരണം ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അയച്ചാൽ മതി ഞാൻ നമ്മുടെ വീട്ടിലേക്കല്ല ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അഞ്ച് ബിരിയാണി അഞ്ച് ബിരിയാണി എന്ന് പറയുമ്പം എത്ര രൂപ ആയിരിക്കും ഓ ബിരിയാണിക്ക് അത്രയും രൂപയാകുമല്ലേ ആ കുഴപ്പമില്ല അഞ്ചഞ്ച് ആ രണ്ടായിരത്തഞ്ഞൂറ് രൂപയല്ലേ അയച്ചു തന്നേക്കാം ചേട്ടാ അത് നിങ്ങള് ഡെലിവറി ചെയ്യേണ്ടത് വേറൊരു വീട്ടിലേക്കാണ് ഞാന് അഡ്രസ്സ് പറയാമേ ആ എഴുതിയെടുത്തോളു വാളക്കുഴി ഹൗസ് ആനിക്കാട് പി ഒ വല്ലപ്പള്ളി സിക്സ് ഏയ്റ്റ് നയൻ ഫൈവ് ഏയ്റ്റ് ഫൈവ് ആ ഈ ഒരു അഡ്രസ്സിലോട്ട് ഈ ഒരു ഭക്ഷണം എത്ര സമയം എടുക്കും വരാൻ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റല്ലേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അ ഉച്ചയ്ക്ക് മുന്നേ എത്തിയാൽ മതി ശരി ശരി ആ ഓക്കെ ഓക്കെ